ഇപ്പോൾ പ്രാണികളുടെ ഇപ്പം എന്താണ് കടന്നലോ അല്ലെങ്കിലെന്താ പറയുക തേനീച്ചയൊക്കെ കുത്തുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ആദ്യം എന്താണ് അവടെയൊന്ന് കഴുകും കഴുകിക്കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾ അരച്ച് തേച്ചു കൊടുക്കും മഞ്ഞളിൽ ഭയങ്കര ആൻ്റിബയോട്ടിക് കണ്ടൻ്റൊക്കെ ഉള്ളതുകൊണ്ട് കുർക്കുമിൻ എന്നു പറഞ്ഞൊരു കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് അത് ഇതാക്കാം അത് പണ്ടുതൊട്ടേ ചെയ്തുവരുന്നത് കണ്ടിട്ടുള്ളതാണ് മഞ്ഞൾ പുരട്ടുന്നതും എന്തെങ്കിലും കടന്നലോ അങ്ങനെയെന്തെങ്കിലും കുത്തുകയാണെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ് ഉപ്പിട്ട് കഴുകുന്നത് കണ്ടിട്ടുണ്ട് ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്ന കണ്ടത് പിന്നെ അല്ലെങ്കിൽ ചിലവരിപ്പം ഐസ് വെക്കുന്ന കാണാം കുത്തിയ സ്ഥലത്ത് പെട്ടന്ന് പോകുവാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ പെട്ടന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഐസിങ്ങനെ കാര്യമായിട്ട് വെക്കുന്ന കാണാം ഇതൊക്കെയാണ് മെയിനായിട്ട് നാട്ടിൽ ഞാൻ ചെയ്തുവരുന്നത് കാണുന്നത് തേനീച്ചയൊക്കെ കുത്തിയാൽ അല്ലാണ്ട് വേറൊന്നും പ്രത്യേകിച്ച് കാണുന്നത് കണ്ടിട്ടില്ല